എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ നോക്കിയേടെ വിൻഡോ വിൻഡോസ് ആണ് നോക്കിയ എക്സ് അപ്പം ആ മോഡല് പറഞ്ഞ് വച്ചാൽ അത് ആൻഡ്രോയിഡ് പോലെ അല്ല അത് വിൻഡോസ് നമ്മുടെ ലാ സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് അങ്ങനത്തെ സോഫ്റ്റ്വെയർ മാത്രമാണ് അതിലിപ്പോൾ ഒരു തരം വരെ വാട്സ്ആപ്പ് എല്ലാം ഉപയോഗിക്കാൻ പറ്റിയായിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഇരുപതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വാട്സ്ആപ്പ് അതില് ഉപയോഗിക്കാൻ പറ്റാതെ ആയി കാരണം പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ അതില് അത് വർക്കാവില്ല എന്നുള്ള അവസ്ഥയ്ക്ക് മാറി മെല്ലെ മെല്ലെ അത് വിട്ട് ഇപ്പോൾ പിന്നെ ആൻഡ്രോയിഡ് അണല്ലോ കൂടുതലും വ ആപ്പിൾ ഐഫോൺ മാക് ഓ എസ് എല്ലാം ഉണ്ടെങ്കിലും ആൻഡ്രോയിഡ് ആണ് കൂടുതലായിട്ടും നിൽക്കുന്നത് കാരണം ഒരു മനുഷ്യനെ ഒരു സാധാരണ കുട്ടിക്കുപോലും സിമ്പിളായിട്ടു ഉപയോഗിക്കാൻ പറ്റുന്ന രീതിലാണ് ആൻഡ്രോയിഡിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെയാണ് ആൻഡ്രോയിഡിൻ്റെ എല്ലാ സോഫ്റ്റ് വെയർ സിസ്റ്റങ്ങളും ഓപ്രഷ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ എല്ലാം വർക്കിംഗ് അതുപോലെ തന്നെ ഒരു ജനിച്ച കുട്ടി ഇല്ലെങ്കിൽ ഒരു ഒരു വയസ്സുള്ള കുട്ടിക്കു വരെ നല്ല രീതിക്ക് ആൻഡ്രോയിഡ് ഫോൺ കൈകാര്യം ചെയ്യും അതിനിപ്പോൾ ഒരുപാട് പഠിക്കണം അല്ലെങ്കിൽ പഠിച്ചവർക്കേ പറ്റോളു അങ്ങനെയില്ല മറ്റേ വിൻഡോസ് ഫോൺ എല്ലാം ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് പഠിച്ചവർക്ക് തന്നെ പറ്റുള്ളൂ കാരണം അതില് കംപ്യൂട്ടർ പോലെയാണ് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് പ്രശ്നങ്ങളാണ് ആൻഡ്രോയിഡ് ഫോണാകുമ്പം സിംപിളായിട്ട് യൂസെയ്യാം ഇപ്പോൾ എന്ത് എന്താണെങ്കിലും സിംപിളായിട്ടു യൂസെയ്യാം പിന്നെ എല്ലാ ആപ്പുകളും അതില് പ്രവർത്തിക്കാൻ പറ്റും ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ അതിലു കുറച്ച് ആപ്ലിക്കേ ആപ്പിളിൻ്റെ മാത്രം അപ്ലിക്കേഷൻ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളു പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ കോമണായിട്ടുള്ള വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം അതുമാത്രം അല്ലാതെ സാ വേറെ കുറെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഒന്നും അതില് ഉപയോഗിക്കാൻ പറ്റില്ല ആൻഡ്രോയിഡില് എല്ലാ ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാൻ പറ്റും വേ ആൻഡ്രോയിഡില് വിൻഡോസിൻ്റെ ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ കുറച്ചതെല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ടു തന്നെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ ആൻഡ്രോയിഡാണ് പറ്റിയത് അപ്പം നേരെ തന്നെ ഞാൻ ഉപയോഗിച്ച ഫോണ് എനിക്കിപ്പം ഈ കാലഘട്ടത്തില് ഉപയോഗിക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം ഇപ്പം നമുക്കൊരു ബാങ്കിടപാട് നടത്താൻ ഗൂഗിൾപേയോ ഇല്ലെങ്കിൽ പേടിഎമ്മോ ഒന്നും അതില് വർക്കാവില്ല ഈ ഫോണിലെല്ലാം വർക്കാവുന്നതു കൊണ്ട് അതിലേക്കു മാറും അതുകൊണ്ടു തന്നെ എല്ലാരും അതിലേക്കു മാറും ഈ രണ്ടായിരത്തി പതിനഞ്ചു മുതല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നോക്കുമ്പം നല്ലപോലെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒര് ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആൻഡ്രോയ്ഡെല്ലാം ഇപ്പം നമ്മ ജസ്റ്റ് ചിന്തിക്കുന്ന മുമ്പ് നമ്മടെ പോ ഇപ്പം നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടതെന്തോ അതവിടെ കൊണ്ടു വന്നു തരുന്ന അവസ്ഥയില് എത്തിയിരിക്കയാണ് നമ്മുടെ ടെക്നോളജി അതുകൊണ്ട് തന്നെ വളരെ നല്ല മാറ്റങ്ങളാണ് ആ വന്നിരിക്കുന്നത് ഫോണിൻ്റെ ആയാലും ഇപ്പോൾ കംപ്യൂട്ടറിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും നല്ല രീതിക്കുള്ള മാറ്റങ്ങള് കൊണ്ടു വന്നിട്ടുണ്ട്